ഓല അല്ലെ ആഹ് എനിക്ക് ഒന്ന് എറണാകുളത്തേയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എവിടെയുള്ളിപ്പം ആഹ് എനിക്ക് ഇപ്പോഴല്ല ഒരു അഞ്ചുമണിയാകുമ്പം എനിക്ക് ഒന്ന് പോകണം അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചുമണി ആകുമ്പോഴത്തേയ്ക്കും ഒന്ന് മാനന്തവാടിയ്ക്ക് വരാൻ പറ്റുമോ ആഹ് ഓക്കെ ഓക്കെ സംഭവം എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേയ്ക്ക് പോകാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ മാനന്തവാടിയാണുള്ളത് അപ്പം എനിക്ക് അങ്ങോട്ടേയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെയൊരു നാലുപേര് ഉണ്ടാകും ആഹ് ഓക്കെ ഓക്കെ ആഹ് ഓക്കെ ഓക്കെ അപ്പോൾ എത്രപേർക്ക് വണ്ടിയിൽ കയറാം ഇത് ഇന്നോവയോ അങ്ങനെയെന്തെങ്കിലും ആണോ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ എ സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയില്ലേ ആഹ് ഓക്കെ എത്ര നിങ്ങൾ കറക്ട് ടൈമിന് എത്തുകയില്ലേ നമ്മളൊരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കും എത്താൻ പറ്റില്ലേ ആഹ് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളതിപ്പം ഇവിടേയ്ക്ക് വരണ്ട ഇവിടെ നിന്ന് ഞാൻ ഒരു ബസ്സിൽ കയറിയിട്ട് ഇപ്പത്തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ടൗണിലെത്തും അപ്പം വേഗം വരുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആഹ് ഓക്കെ ഓക്കെ എന്നാൽ നിങ്ങളൊന്ന് വേഗം പോര് എൻ്റെ ഫ്രണ്ട്സും അവിടെയുണ്ടാകും അപ്പോൾ നിങ്ങൾ വേഗം പോര് അങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും അവിടെയെത്താം ആഹ് ഓക്കെ ഓക്കെ എന്നാൽ നിങ്ങൾ ഇപ്പോൾത്തന്നെ പോര് ഞാൻ ഇവിടെ നിന്ന് ബസ്സിലിപ്പോൾ കയറും ഇതാ ബസ്സ് വന്നിട്ടുണ്ട് അപ്പം ബസ്സിൽ കയറാൻ വേണ്ടി പോകുകയാണ് അതെ ശരി